ബാങ്കിങ്ങ് വളർച്ചയെ സഹായിക്കുന്ന അല്ല പിന്നെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിച്ച രണ്ട് ഘടകങ്ങളാണ് പിന്നെ ബാങ്കിംഗും ഡിജിറ്റൽ പേമെൻറ്റും പിന്നെ അത് അത് വളരുകയും വികസിക്കുകയും ചെയ്തു വളർച്ചയ്ക്ക് കാരണം ആയ മൂന്ന് പ്രധാന വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റോഡ് മാർഗമുള്ള വികസനം മ് പിന്നെ പ്രൊടക്ഷൻ കാര്യങ്ങളിൽ ഉള്ള വികസനം നമ്മളുടെ കാർഷിക മേഖലയിലുള്ള വികസനം അങ്ങനെ ഒത്തിരിയൊത്തിരി എല്ലാം അതായത് ഇന്ത്യയിലുള്ള എല്ലാ വ്യവസായിക രംഗങ്ങളിലും നമ്മൾ അനുസി വളരെ സ്പീഡിൽ ഉള്ള ഒരു വളർച്ചയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മളുടെ ഇന്റ്റർനെറ്റ് ബാങ്കിംഗ് ഡിജിറ്റൽ പേയ്മെൻറ്റും വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടും നമ്മുടെ ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിനുമൊക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റ് വളരെ ഉപകാരപ്രദമാണ് അത് പോലെ തന്നെ ഈ ലെറ്ററുകളൊക്കെ അയച്ച് മാസങ്ങളോളം അല്ലേ ആഴ്ചകളോളം കാത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മെയിൽ വിട്ടിട്ട് അതിന് റിപ്ലൈ കിട്ടുന്നത് അതുകൊണ്ട്തന്നെ ഈ എന്നാ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമായ പ്രധാന വ്യവസായങ്ങളായ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ പേയ്മെൻറ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട്